ഇന്ത്യയിലെ സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസം വിനോദം ഗതാഗതം എന്നിവ എന്നിവയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് ആദ്യ ആദ്യകാലങ്ങളിൽ നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം അതുപോലെ സാങ്കേതിക വിദ്യ ഒന്നു അങ്ങനെ നമുക്ക് എന്താണെന്നുപോലും ഞാൻ അറിവില്ലായിരുന്നു വിദ്യാഭ്യാസം പലർക്കും കിട്ടീട്ടുംഇല്ലാരുന്നു അതുപോലെ ഗതാഗതമാർഗങ്ങളൊക്കെ തീരെ റോഡ് റോഡൊക്കെ വളരെ വളരെ കുണ്ടും കുഴിയും നിറഞ്ഞതും അതുപോലെ ട്രാഫിക്ക് കൂടുതല് അതുപോലെ അങ്ങനെയുള്ള നിരവധിപ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെത്തന്നെ ഇന്നെന്നാല് ഈ ഒരു ഈ ഒരു മേഖലയിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈമാറ്റങ്ങൾ കൊണ്ടുവന്നത് ആരാന്നുവച്ചാല് നമ്മുടെ ഇന്ത്യയില് അല്ലെങ്കിൽ കേരളത്തിലെ തടി വ്യവസായികളും നേതാക്കളും തന്നെയാണ് നമ്മുടെ നേതാക്കന്മാരായ രാഹുൽഗാന്ധി അതുപോലെ ഇപ്പോൾ രാഹുൽഗാന്ധി ഇപ്പോൾ നമ്മുടെ വയനാട് പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുപോലെ ത്തന്നെ വയനാട്ടിലാണെങ്കിൽ പോലും പിന്നെ ആ റോഡാണെങ്കിലും ഇപ്പോൾ കൽപ്പറ്റ വയനാട് വയനാട് മാനന്തവാടി ടൌണിൽ നിന്ന് തൊട്ട് കൽപ്പറ്റ വരെയുള്ള ടൗണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ സൈഡില് റോഡരികില് ഫുട് പാത്ത് ഉണ്ടാക്കുകയും അതുപോലെ റോഡി ൻ്റെ വീതി കൂട്ടുകയും പിന്നെ ഒരുപാട് പദ്ധതി അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഈ റോഡരികിലുള്ള വീടുകളില് മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് ആ മതില് പൊളിപ്പിച്ച് അവർക്ക് പുതിയ മതില് നിർമിച്ച് കൊടുക്കുകയും പിന്നെ അത് പോലെ ആ മതില് പൊളിച്ചതിന് അവർക്ക് നഷ്ടപരിഹാരം നൽകുകയും അതുപോലെ വീതികൂട്ടി പിന്നെ ഇപ്പോൾ കുറെ അപകടങ്ങളെ കുറച്ചിട്ടുണ്ട് അത് ഈ വലിയ നേതാക്കന്മാരുടെ കഴിവ് തന്നെയാണ് അവര് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഓരോ നിയമങ്ങളും അത് പോലെ പദ്ധതികൾ കൊണ്ട് വരുന്നത് കൊണ്ട്തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും വിനോദ വിനോദ സഞ്ചാരികൾക്കാണെങ്കിലും അത് പോലെ ഗതാഗത മാർഗ്ഗങ്ങളാണ് ഒരുപാട് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അത്പോലെത്തന്നെ ഇപ്പത്തെ പ്രധാനമന്ത്രി ആയ അമി പ്ര നരേന്ദ്രമോദി അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയ പിണറായി വിജയൻ ഇത് പോലുള്ള ഒരുപാട് ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നയങ്ങൾ സ്വീകരിക്കുകയും പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് പതിന ഇന്ന് പതിനഞ്ചാമത്തെ നിയ നിയമസ കേരളത്തിലെ പതിനഞ്ചാമത്തെ നിയമ സഭയില് ഇരുപത്തൊന്ന് അംഗങ്ങളുണ്ട് അതും ഓരോ അംഗ ഓരോ ആൾക്കാരും ഓരോ മേഖലയിലേക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ മൂന്നാൾക്കാര് സ്ത്രീകളാണ് അവര് വിദ്യാഭ്യാസ മേഖലയില് മേഖലയിലായിക്കോട്ടെ ഗതാഗത മാർഗ്ഗത്തിലായിക്കോട്ടെ അതുപോലെ വാണിജ്യവ്യാവസായിക മേഖ മേഖലയിലേക്കായിക്കോട്ടെ ഒരുപാട് നിയമങ്ങളും അതുപോലെ ഒരുപാട് മാറ്റങ്ങള് വരുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ന ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഗതാഗതമാർഗ്ഗങ്ങള് നന്നാക്കിയതായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഇപ്പം എല്ലാവർക്കും നൽകുന്നുണ്ട് ഇപ്പോൾ പിന്നെ ആദ്യമൊക്കെ ആദിവാസിവിഭാഗങ്ങളിലൊന്നും പെട്ട ആൾക്കാർക്ക് അധികം വിദ്യാഭ്യാസം നൽകാറില്ലായിരുന്നു എന്നാൽ ഇന്ന് അവർക്ക് ഒരുപാട് ഇപ്പോൾ സ്കൂളിലായിക്കോട്ടെ അവർക്ക് ഭക്ഷണം നൽകുകയും അതുപോലെ പോഷകാഹാരങ്ങള് നൽകുകയും വിദ്യാഭ്യാസ മേഖലയില് അവരെ മുൻ അവർക്ക് നല്ല മുൻഗണന നൽകുകയും അവർക്ക് ഒരുപാട് കാര്യങ്ങള് സൗജന്യമായി നൽകി അവരെ പഠിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കി കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതികളും ഈ നേതാക്കന്മാരാണ് നൽകിയിരിക്കുന്നത് തന്നെ അത് പോലെ ഓരോ ഒരുപാട് ഇപ്പം നമ്മുടെ അംബാനിയെ പോലുള്ള ആൾക്കാര് ഒരുപാട് മേഖലയില് സംഭാവന നൽകുന്നുണ്ട് അത്കൊണ്ട്തന്നെ പിന്നെ ഓരോ കാര്യങ്ങളും മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് മെച്ചപ്പെടുത്താന് ഈ ഇന്ത്യയില് ആയിക്കോട്ടെ നല്ല മെച്ചപ്പെട്ട കാര്യങ്ങൾ കാണപ്പെടുന്നുണ്ട്